ആ കേൾക്കാമോ ആ മരിയൻ ബേക്കറി അല്ലേ ആ മരിയൻ ബേക്കറി അല്ലേ എന്ന് ആ എൻ്റെ പേര് സിജു എന്നാണ് ഞാൻ നിങ്ങളുടെ റെഗുലർ കസ്റ്റമർ ആണ് ആ നമുക്ക് ഇന്ന് എന്തെങ്കിലും അവിടെ സ്പെഷ്യൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു നമുക്ക് ഇന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നേ ആ ആ ഓക്കെ ഓക്കെ വെ വെജ് ഐറ്റംസ് വേറെ ഒന്നും ഇല്ലേ സമോസ അല്ലാണ്ട് വെജ് ആയിട്ട് വരുന്ന എന്തെങ്കിലും വേറെ ഉണ്ടോ

ആ കേൾക്കുന്നുണ്ട് വെജ് ആയിട്ട് വരുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സമോസ അല്ലാതെ ആണല്ലേ നമുക്കൊരു പത്തിരുപത് എണ്ണം ഇപ്പം എടുക്കാൻ കാണുവോ നമുക്ക് ആ ആ ആറ് മ ആറ് മണി ആകുമ്പോഴത്തേനും വേണം ആറ് മണിയാവുമ്പോഴത്തേക്ക് ഒരു ചിക്കൻ സമോസ ഒരു ഇരുപതെണ്ണം പിന്നെ വേറെ എതാണ് ഉള്ളത് സമോസ വേറെ എതാണ് ഉള്ളത് ചിക്കൻ അല്ലാതെ വേറെ ഏതാണ് ഉള്ളത് ആ വെജ് വെജ് ഒരു പത്തെണ്ണം ആ ബീഫ് ഒരു അഞ്ചെണ്ണം മതി പിന്നെ നമുക്ക് ഫ്രഷ് ലൈം അങ്ങനത്തെ ഷേക്ക് അങ്ങനെ എ എന്തെങ്കിലും ഇപ്പം ഉണ്ടോ ആറ് മണിയാവുമ്പോഴത്തേക്കും കിട്ടുമോ ഷേക്ക് ഒരു മുപ്പത്തഞ്ച് എണ്ണം വേണം ആ വിത്ത് ഐസ്ക്രീം ആ ഓക്കേ അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെയാണ് കൊണ്ട് കൊണ്ട് കൊണ്ട് തരുമോ നമ്മൾ ആരെ എങ്കിലും പറഞ്ഞു വിടണോ ആ ഞാൻ ഒരു പണി ചെയ്യാം ലൊക്കേഷൻ ഇട്ടു തരാം ആ ഡെലിവറിക്ക് ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ടോ ആണല്ലേ ടെൻ റുപ്പീസ് ആണോ ആ ഓക്കെ ഓക്കെ പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു

ആ ഓക്കെ ഓക്കെ ഞാൻ ലാസ്റ്റ് വന്നത് അവിടെ ഒരു പാർട്ടിയുടെ ഒരു ഓർഡർ കൊടുത്തിരുന്നു ഓഫീസിലെ ആ അതെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കറക്റ്റ് ആയിരുന്നു ആ കുഴപ്പം ഇല്ലായിരുന്നു നല്ല നല്ലതായിരുന്നു നല്ല ഫുഡ് ആയിരുന്നു ഞാൻ ആക്ച്വലി ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അന്നേരം വേറെ ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്കന്ന് വരാൻ പറ്റിയില്ല താമസിച്ചു പോയി വന്നപ്പം ക കഴിച്ചവർ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു നല്ല ഫുഡ് ആയിരുന്നു പറഞ്ഞു ആ വെറെ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ആ ഓക്കെ ശരി ശരി ശരി താങ്ക് യു താങ്ക് യു ആ ഓക്കെ ഓക്കെ